നമസ്കാരം ഞാൻ അശോക് ഞാൻ എൻ്റെ ബൈക്കിനെ വളരെ നന്നായി പരിപാലിക്കുന്ന ഒരാളാണ് ബൈക്കും കാറും ഞാൻ കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുകയും കഴുകുകയും ചെയ്യാറുണ്ട് ബൈക്ക് ഞാൻ വീട്ടിലാകുമ്പോഴും റോട്ടിലാകുമ്പോഴും നല്ല വൃ ഭംഗിയായി കൈകാര്യം ചെയ്യാറുണ്ട് ബൈക്ക് ഞാൻ വീട്ടിൽ വെക്കുമ്പോൾ ഷെഡിൽ ആണ് വെക്കാറ് ഇനി പുറത്ത് പോകുമ്പോൾ ഞാൻ ഒരു തണലത്തല്ലാതെ ബൈക്ക് വെക്കാറില്ല അധവാ തണൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ തണൽ കിട്ടുന്നവരെ പോയി അ ബൈക്ക് വെച്ച് തിരിച്ചു നടക്കുകയാണ് ചെയ്യാറ് ബൈക്ക് ഇനി റോട്ടിലോടിക്കുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഓടിക്കാറ് ബൈക്കിൻ പരമാവതി കേടുപാടുകൾ കുറക്കുക കുറക്കാവുന്ന രീതിയിലാണു ഞാൻ ഓടിക്കാറ് ബൈക്ക് ഞാൻ അധികം സ്പീഡിലും ഓടിക്കാറില്ല ഞാൻ എൻ്റെ ബൈക്കിനെ വളരെ നന്നായി നോക്കും എന്നാണ് എനിക്ക് മനസിലായത്